ഞാൻ ചിത്രം വരയ്ക്കാച്ചത് ആഴമേറിയതെന്ന് പറഞ്ഞ്കഴിഞ്ഞാല് ഭൂമിയെ ഞാൻ വരണ്ടത് വരച്ചത് പരിസ്ഥിതി ദിനത്തെ കുറിച്ചിട്ടായിരുന്നു ഒരു ചിത്രം വരച്ചത് അത് വല്ലാത്തൊരു ചിത്രം ആയിരുന്നു എന്താണെന്ന് വെച്ചാല് മരങ്ങൾ വെട്ടുമ്പോഴും മരങ്ങൾ വെട്ടലും മണലുകോരലും അതുപോലെ തടാകങ്ങളൊക്കെ ഇപ്പം മായ്ക്കുകയാണല്ലോ മണ്ണൊക്കെ ഇട്ട് മൂടുന്നത് കാരണം വരണ്ട് പോകുന്ന ഭൂമി ആയിട്ടാണ് ഞാൻ വരച്ചത് അത് വല്ലാത്തൊരിതാണ് എന്താണെന്ന് വെച്ചാൽ വരണ്ടുപോകുന്ന ഭൂമിയായിട്ടാണ് ഇനി വരുന്ന കാലവും അങ്ങിനെ ആയിരിക്കുംന്നാണ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മരമൊക്കെ മുറിക്കുന്നു അങ്ങനെയൊക്കെ ആണല്ലോ